ആ ഇത് മിംസ് ഹോസ്പിറ്റൽ അല്ലേ ആ ഞാൻ കഴിഞ്ഞയാഴ്ച അവിടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ അജിത്ത് എന്നാണ് പേര് ഓക്കെ ആ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൽറ്റ് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആണോ ആ ഞാൻ അങ്ങനെ ഒരു ഡയറ്റ് കോൺഷ്യസ് അല്ല ബട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ആ ആ

ഓക്കെ ആണല്ലേ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഞാൻ പ്രിവൻറ് ചെയ്യേണ്ടത് ഇത് അവോയിഡ് ചെയ്യേണ്ടത് ആ ഞാനങ്ങനെ ഞാ ഞാനങ്ങനെ ജങ്ക് ഫൂഡ്സ് അങ്ങനെ അധികം കഴിക്കാറില്ല പക്ഷേ ഞാൻ ഈ എന്താണ് പറയുക ഓയിലി ആയിട്ടുള്ള ഫൂഡ്സ് കുറച്ച് കഴിക്കാറുണ്ട് അത് പ്രശ്നമായിരിക്കും അല്ലേ

ഓക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഫൂഡ്സ് കഴിക്കാം അതായത് കൊഴ ആ ആ ഏതൊക്കെ രീതിയിലുള്ള ഫൂഡ്സ് എനിക്ക് കഴിക്കാൻ കഴിയും അതായത് ഈ കൊളസ്ട്രോൾ ഒന്ന് ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓക്കെ ആ

ഓക്കെ ആ ഓക്കെ ഓക്കെ അതേപോലെ ഈ ജ്യൂ ജ്യൂസ് ഐറ്റംസ് ഒക്കെ അതായത് ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് ഹെൽത്തിന് നല്ലതായിരിക്കുമോ അതായത് കൊളസ്ട്രോൾ ഒരു രീതിയിൽ വരെ പ്രിവൻറ് ചെയ്യാൻ എന്തെങ്കിലും അതെ അതേപോലെ ഈ ആപ്പിൾ ആപ്പിൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിശപ്പൊക്കെ ഒരു കണ്ട്രോൾ ചെയ്യാനും ഒക്കെ കഴിയുന്നതാണല്ലോ അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ജ്യൂസ് ഒക്കെ ഒന്ന് പ്രിഫർ ചെയ്ത് അങ്ങനത്തെ കഴിക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ വരെ നമുക്ക് കണ്ട്രോൾ ചെയ്യാമായിരിക്കും അല്ലേ അതെയതെ ആ ആ ആ ഓക്കെ ഓക്കെ അപ്പം ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനൊന്ന് എക്സർസൈസ് ഒക്കെ ഒന്ന് ഡെയ്ലി ചെയ്തുപോവുക അതേപോലെതന്നെ ഇതുപോലെയുള്ള ഫൂഡ്സ് ഒക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ അധികമുള്ള കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനത് ഫോളോ ചെയ്തോളാം അതേപോലെ ഇനി ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുവന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്താൽ പോരേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ